ഹലോ അൽ മദീന സൂപ്പർ മാർക്കറ്റല്ലേ ഫ്രൂട്ട്സ് വേണമായിരുന്നു നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സന്നെയല്ലേ ബനാന വേണം നേന്ത്രപ്പഴം വേണം അതെങ്ങനാണ് റേറ്റ് എത്ര വരുന്നത് അതിന് വൺ കെ ജി

ആ ഓക്കെ ആ റേറ്റ് എങ്ങനെ ഒരു ഹോൾ സെയിൽ എടുക്ക് നമുക്കൊരു എട്ട് കിലോ ഒരു ചെറിയ ഷോപ്പുണ്ട് അവിടത്തേക്ക്

നല്ല നോക്കി എടുക്കും ഓക്കെ ഓക്കെ താങ്ക് യൂ അതുപോലെ പിന്നെ ഓറഞ്ചും ഓറഞ്ച് വേണമായിരുന്നു

അതിങ്ങനെ ചെറുതും രണ്ട് ടൈപ്പും ഉണ്ട് ചെറുതും വലുതും ആയിട്ട് രണ്ട്

കുറച്ച് അതും ഉണ്ടോ അത് രണ്ടും വേണം ഒരു ബാക്കിയുള്ള പിന്നെ ആപ്പിളും കൂടി വേണമായിരുന്നു ആപ്പിൾ ആപ്പിള് ആ ആപ്പിള് ഗ്രേപ്പ് ഗ്രേപ്പ് ഗ്രേപ്പ് കുറച്ച് മതി ഗ്രേപ്പൊര് ഫൈവ് കെ ജി അങ്ങനെ മതി വെളുത്തത് വെളുത്തത് മതി ജസ്റ്റ് സ്റ്റാർട്ടിംഗല്ലേ അപ്പോൾ എങ്ങനെ പോവും നോക്കീട്ട് എടുക്കാം ഷോപ്പ് വരുന്ന ചട്ടഞ്ചാലാന്ന് നിങ്ങളെന്നെ ഡെലിവർ ചെയ്തേരോ ഈടുന്ന് ഓർഡറ് ചെയ്താൽ ആ ഡെലിവർ ചെയ്തേരോ ഞാൻ ലൊക്കേഷൻ അയച്ച് തന്നാൽ ആ ഓക്കെ ഓക്കെ വെജിറ്റബിൾസെല്ലം കുറച്ച് റേറ്റിൽ കിട്ടുവല്ലോ

ഓക്കെ അല്ല ഈ കറി പൗഡേഴ്സെല്ലാം നിങ്ങൾ അവിടുന്നന്നെ എടുക്കാലോ ഓക്കെ ഓക്കെ ഫസ്റ്റ് ആ വലിയ ഓക്കെ ആ വാട്ട്സ്പ്പുണ്ട് ഇതിലേക്ക് ഷെയറ് ചെയ്താൽ മതി അപ്പോൾ

ഫ്രൂട്ട്സ് ആ ആ ആ ഇപ്പന്നെ ഞാൻ ഒരു ലിസ്റ്റ് വാട്ട്സ്പ്പ് ചെയ്യാം കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഇതെല്ലം ആയിട്ടുള്ള ആ ഒരിക്കൽ എന്തായാലും വന്നിട്ട് ആടെ വന്നിട്ട് അതിൽ എങ്ങനെ ലിസ്റ്റ് തരാം നിങ്ങൾ ഒന്ന് ഡെലിവറിയാക്കി തന്നാൽ മതി

ആ ആ ഓക്കെ

ഓക്കെ ഓക്കെ ഇത്

ആ ഞാൻ കണ്ട് ഞാൻ കണ്ടിട്ട് എന്നോട് ചങ്ങായി പറഞ്ഞ് അങ്ങനാണ് വിളിച്ച് ചോദിച്ചത് ഈ റേറ്റെല്ലം എങ്ങനെയാന്ന് അറിയാൻ ഫ്രൂട്ട്സിൻ്റെ ആ ആ ഈ ഗ്രേപ്പ് ഗ്രേപ്പ് എത്ര വരുന്നു പറഞ്ഞത് ഗ്രേപ്പ് വെളുത്ത ഗ്രേപ്പ് ആ അതെ ആ അത് വേറെ വേറെ റേറ്റാ കറുത്തക്കും വെളുത്തക്കും ആ അതെയാ ഓക്കെ വന്ന് വന്നിട്ട് നോക്കി സംസാരിക്കാം പിന്നെ

ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ